മൊബൈൽ ഫോണിന് ഒരുപാട് പോസിറ്റീവുണ്ട് നമുക്ക് ഒരുപാട് ആ നോളേജ് അക്വയറ് ചെയ്യാനായിക്കോട്ടെ ഇപ്പോൾ നമുക്ക് ദൂരെയുള്ള ഒരാളെ കാണണമെങ്കിൽ നമുക്ക് കണ്ടു സംസാരിക്കണമെങ്കിൽ വീഡിയോ കോള് വഴി കാണാൻ കഴിയും നമുക്ക് ഒരാളോട് സംസാരിക്കണമെങ്കിൽ അയാളുടെ അടുത്ത് പോകേണ്ട ആവിശ്യമില്ല നമുക്ക് കോൾ ചെയ്യാൻ പറ്റും അതുപോലെതന്നെ നമുക്ക് ഒര് ഇൻഫർമേഷൻസ് പെട്ടെന്ന് പാസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്പ്സുണ്ട് അതുപോലെതന്നെ നമ്മുടെ ഫോട്ടോസ് കാപ്ച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട് അതുപോലെ നമുക്കൊരു എന്താ പറയുക ഒരു ഗൂഗിളുണ്ട് അപ്പോൾ നമുക്ക് ഓഹ് പെട്ടെന്ന് സെർച്ച് ചെയ്യാം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ സെർച്ച് ചെയ്യാം ഇപ്പോൾ കാൽക്കുലേറ്ററുണ്ട് അതുപോലെ കാൽക്കുലേറ്റ് ചെയ്യാം നമുക്കൊരു എമൌണ്ട് അയക്കണമെങ്കിൽ ഗൂഗിൾ പേ ഫോൺപേ അതുപോലുള്ള ആപ്പ് വഴി അയക്കാം നമുക്ക് മണി അവർക്ക് അയക്കാം നമുക്ക് സെൻ്റ് ചെയ്യാം നമുക്കിപ്പോഴൊരു ഒരു സാധനം വാങ്ങണമെങ്കിൽ നമ്മൾ എന്താ പറയുക നമ്മൾ ഓൺലൈന് വഴി നമുക്ക് ബുക്ക് ചെയ്യാൻവേണ്ടി സാധിക്കുന്നുണ്ട് അതുപോലെതന്നെ നമുക്ക് പേയ്മെൻ്റെല്ലാം ഓൺലൈന് വഴി നടത്താൻ കഴിയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾക്കു വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് മൊബൈൽ ഫോണ് വരവെന്നു വച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈംപാസ്സാണ് നമ്മുടെ എന്റർടൈൻമെൻ്റിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ട്